ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്നത് അഞ്ച് കിലോമീറ്ററ് ആറ് കിലോമീറ്ററ് അകത്ത് ബാങ്കുണ്ട് അത്രേ വരുള്ളൂ ബാങ്കുകളെല്ലാം അടുത്തടുത്തുണ്ട് എല്ലാ ബാങ്കുമുണ്ട് പിന്നെ പ്രായമായവർക്കൊക്കെ ബാങ്കി പോണെങ്കിൽ ഒരു ഏജൻറ്മാർ വീട്ടിൽ വരുന്നുണ്ട് പിന്നെ എൽ ഐ ജി എൽ ഐ സി ഏജൻറ്മാർ വരവുണ്ട് അടുത്താണ് ബാങ്കുകളെല്ലാം അടുത്ത് തന്നെയാണ് കുഴപ്പൊന്നുമില്ല ബാങ്കിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ബാങ്കുകളുണ്ട് ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളും ഉണ്ട് ഏജൻറ്മാരും വീട്ടിൽ വരവുണ്ട് ഏതാവശ്യത്തിനു വിളിച്ചാലും അവർ വരും പ്രത്യേകിച്ച് എൽ ഐ സിയാണെങ്കിലും അല്ലാത്ത ഇതിനാണെങ്കിലും ഏജൻറ്മാർ വീട്ടിൽ വരാറുണ്ട് എൽ ഐ സി കൂട്ടാനും അതിനും അല്ലാത്ത ആവശ്യങ്ങൾക്കും പിന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ അവർ വരുന്നുണ്ട് ബാങ്കിൻ്റെയാണെങ്കിലും അവർ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാനും എല്ലാ ബാങ്കുകാരും നമ്മളെ ഒരു പറ വിളിക്കലൂണ്ട് അന്വേഷിക്കുന്നുവുണ്ട് പിന്നെ നമുക്ക് ലോണിൻ്റെ കാര്യത്തിനും ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ബാങ്കിൽ പോകാൻ എളുപ്പമാണ് പ്രായമുള്ളവരാണെങ്കിലും ആവശ്യങ്ങൾക്ക് അവർ വണ്ടി അത്യാവശ്യക്കാർ നടക്കാൻ വയ്യാത്തവരൊക്കാണെങ്കിൽ വണ്ടി വിളിച്ച് വന്ന് ബാങ്കുകാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട് മറ്റേ ഇതൊന്നുമില്ല പ്രായമായ ആൾക്കാരെല്ലാം വണ്ടി സൗകര്യങ്ങളൊക്കെയുണ്ട് കുഴപ്പമൊന്നുല്ല

ഗ്രാമീണ ബാങ്ക് അങ്ങനെ എല്ലാ ബാങ്കുകളും കേരള ബാങ്ക് എല്ലാ ബാങ്കുകളു ഉണ്ട് ഒരു കുഴപ്പമില്ല പ്രായമായവരൊക്കെയാണെങ്കിൽ അവർ ബാങ്കി തന്നെ ബാങ്കിൽ പോകേണ്ട ആവശ്യമാണെങ്കിൽ അവരെ വിളിച്ചാൽ അവരപ്പോൾ വണ്ടി വിടും അല്ലെങ്കിൽ അവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും എൽ ഐ സിയുടെ ഇതാണെങ്കിലും അവർ പോളിസി അടയ്ക്കാൻ വേണ്ടിട്ടൊക്കെ അവർ വീടുകളിൽ കൂടിയൊക്കെ വരവുണ്ട് എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നുല്ലാതെ പോകുന്നുണ്ട് ബാങ്ക് മേഖലയെ സംബന്ധിച്ചിവിടെ നമ്മുടെ ഏരിയയിലൊന്നും കുഴപ്പമില്ലാത്ത സ്ഥലമാണ്